ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പലരീതിലുള്ള വ്യവസായകേന്ദ്രങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടൌണും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ നല്ലരീതിയിൽ പിടിച്ചുനിൽക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള വ്യവസായവും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ഇപ്പം പല രീതിയിലുള്ള വ്യവസായങ്ങളുണ്ട് ഇപ്പോൾ തുണി ഉണ്ടാക്കുന്ന വ്യവസായവും കാര്യങ്ങളൊക്കെയുണ്ട് അവിടെ നല്ല രീതിയിലുള്ള ഇപ്പോൾ ആൾക്കാർക്ക് ഇടാൻ പറ്റിയ ഷർട്ട് മുണ്ട് ബനിയൻ ഇപ്പോൾ ലേഡീസിന് ആണെങ്കിൽ പല രീതിയിലുള്ള തുണികളും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ചുരിദാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പല രീതിയിലുള്ള വ്യവസായവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ വാഴക്കൃഷി അങ്ങനത്തെ പല രീതിയിലുള്ള കൃഷികളും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ വാഴക്കൃഷിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിലുള്ള നേന്ത്രവാഴ പിന്നെ ഞാലിപൂവൻ അങ്ങനത്തെ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ടയർ അതായത് ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെ കെ ടയറൊക്കെയാണ് കൂടുതലായിട്ടും നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഈ നമ്മൾ ഈ റബ്ബർ മോൾഡ് റബ്ബറുകൊണ്ട് ഉണ്ടാകുന്ന മോൾഡും കാര്യങ്ങളൊക്കെ അതായത് ഇൻ്റർ ലോക്കിന് പറ്റിയ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു വരുന്ന വ്യവസായങ്ങളാണ് ഇതൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലുണ്ട്